മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനാല് നാല് മൂന്ന് രണ്ടായിരത്തി രണ്ട്